സാധാരണയായിട്ട് നമ്മുടെ ഇവിടകളിൽ പല അതായത് പന്നികൾ പെരുച്ചാഴി മുള്ളൻപന്നി അങ്ങനത്തെ ഐറ്റംസ് ഒക്കയാണ് പിന്നെ കിളികളൊക്കെയാണ് അത് അത്ര പ്രശ്നമല്ല പക്ഷെ ഈ പന്നികളുടെയാണ് ആക്രമകാരി അതാണ് നമുക്ക് കൂടുതലായിട്ട് പ്രശ്നം വരുന്നത്

പന്നികളുടെ വലിയ പന്നികളാണെങ്കിൽ ഇപ്പോൾ തൽക്കാലം നമുക്ക് വേലി കമ്പിവേലി ഇട്ടിട്ടോ അങ്ങനെ കുറച്ച് ഇതാക്കീട്ട് അതായത് വലിയ കാര്യമൊന്നും ഇല്ല അവരെന്നാലും വരും ചെറിയ മുള്ളൻപന്നി ഏതാണെന്നു പറയുമ്പോൾ അവര് തുരന്ന് ചെറിയ ഇതാണ് അവരൊക്കെ തുരന്ന് തുരന്ന് വരും അപ്പോൾ അവരെ നമുക്ക് പ്രധിരോധിക്കാനായിട്ട് വലിയ ഇതൊന്നും ഇല്ല മുള്ളൻപന്നി നമുക്ക് മാത്രം ആയിട്ട് വലിയ കമ്പിവേലിയും അങ്ങനത്തെ സംഭവൊക്കെ ചെയ്യാം പിന്നെ വെഷം വെക്കണം അല്ലെങ്കിൽ പിന്നെ അവർക്ക് കെണി വെക്കുക അങ്ങനത്തെ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അവരെ സംരക്ഷിക്കാൻ നമ്മുടെ വിളകളെ സംരക്ഷിക്കാൻ ആയിട്ട് അതില് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്തുകഴിഞ്ഞാൽ പണ്ടത്തെപോലെയല്ല ഇപ്പോൾ കേസും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ അവര് അഥവാ ചത്തുപോയിക്കഴിഞ്ഞാൽ പണികിട്ടും അപ്പോൾ ഇപ്പോൾ പെരുച്ചാഴിക്കാണെങ്കിൽ നമുക്ക് വിഷം വയ്ക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം പന്നികളെ ഇപ്പോൾ നമുക്ക് മറ്റേ ഈ വേലി അങ്ങനത്തെ എന്തെങ്കിലും കെട്ടി സംരക്ഷിക്കാനേ പറ്റൂ